സാഹിത്യത്തിലും കവിതയിലും മറ്റ് കലാവിഷ്കാരങ്ങളിലും മലയാള ഭാഷ നല്ല രീതിയിൽത്തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതിപ്പോൾ എങ്ങെനെയാണെന്നക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യമാകട്ടെ കവിതയാകട്ടെ അല്ലെങ്കിൽ ഏത് ഏതൊരുസാഹിത്യ ശൈലിയിലുള്ള കാര്യങ്ങളാവട്ടെ നമ്മുടെ മലയാള ബ്ലാ ഭാഷയ്ക്ക് ഇതിലെല്ലാത്തിലും ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട് കാരണം അത് വ്യത്യസ്തരീതിയിൽ തന്നെയാണ് ഉപകുയോഗിക്കപ്പെടുന്നത് ഇപ്പം ഭാഷയുടെ കാര്യം തന്നെ എടുത്തു നോക്കുകഎന്നുണ്ടെങ്കിൽ പല വ്യത്യസ്ത രീതിയിലത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ മാതൃഭാഷ അല്ലെങ്കിൽ അച്ചടി ഭാഷ അല്ലാ എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ക്ലാസിയ്ക്കൽ ഭാഷയിലൊക്കെ നമ്മളെഴുതും എഴുത്തും വായനയും ഒക്കെ ആയിട്ട് നമ്മുടെ ഭാഷ നമ്മുടെ മലയാള സാഹിത്യമായിട്ട് നമ്മുടെ മലയാളസാഹിത്യത്തിൽ നമ്മുടെ ഭാഷ നമ്മൾ കൊണ്ടു വരുന്നുണ്ട് നമ്മുടെ ഭാഷയ്ക്ക് വലിയൊരു സ എന്താ വലിയൊരു അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാള ഭാഷക്ക് സാംസ്ക്കാരിക ഭാഷ എന്നുള്ളൊരു പ്രെധ ഒരു പദവി തന്നെ കിട്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള ഭാഷ ഒര് സങ്കര ഭാഷയാണ് അപ്പം ഇത് ഒരു സങ്കരഭാഷ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വ്യത്യസ്ത ബാ ഭാഷകളും കലർന്നിട്ടുള്ള ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ അപ്പം അങ്ങനെയൊരു ഭാഷയിൽകൂടെ നമ്മൾ പല സാഹിത്യങ്ങളും രചിക്കുമ്പോൾ അതിന് വലിയ ഭയങ്കര നല്ല മനോഹരമായിട്ടൊള്ള ഒരു മനോഹാരിത തന്നെയുണ്ട് അതിനെല്ലാം അപ്പോൾ നാ നമ്മുടെ ഭാഷ ഈ ഈ സാഹിത്യത്തിലും കവിതയിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് അത് ഏതൊരു വാക്ക് ആണെന്നുണ്ടെങ്കിലും അത് എന്ത് കാര്യങ്ങളത് നമ്മള് രചിക്കുകയാണെന്നു ണ്ടെങ്കിലും എഴുതുകയാണെന്നുടെങ്കിലും നമ്മള് നമ്മുടെ ഭാഷയെ ഭാഷയിൽ തന്നെ എഴുതുമ്പോൾ അതിന് വളരെ മനോഹാരിത വരുത്തികൊണ്ട് തന്നെയാണ് അത് രചിക്കാറുള്ളത് അതുകൊണ്ട് നമ്മുടെ സാഹിത്യത്തിലും കവിതയിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മലയാള ഭാഷയ്ക്ക് നമ്മുടെ മലയാള ഭാഷ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്